പൗരൻമാരെ സംരക്ഷിക്കുന്നതിനും സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നതിനും നിയമ വ്യവസ്ഥയിൽ മെച്ചപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കുറ്റങ്ങൾ ചെയ്യുന്നവർക്കും അതിനനുസരിച്ചുള്ള ദണ്ഡന അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷകൾ കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പലരും തെറ്റുകൾ ചെയ്യാൻ ഒന്ന് മടിക്കും അത് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും നിയമങ്ങളിൽ ശിക്ഷകൾ വളരെ ലാഘവത്തോടെയാണ് എല്ലാവരും എടുക്കുന്നത് പൗരൻന്മാരെ സംരക്ഷിക്കുക എന്നത് അവർ അവരവർ തന്നെ വിചാരിച്ചാൽ മാത്രം സഹ നടക്കുന്നൊരു കാര്യമല്ല ചുറ്റിനും ഉള്ള ആൾക്കാരുടേയും മാനസിക മായിട്ടുള്ള അവസ്ഥകളും ഇതിനെ ബന്ധിച്ചിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ളവർ അക്രമാസക്തരായാൽ സാധാരണ പൗരൻന്മാർക്ക് സമാധാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്തിനെന്ന് പോലുമാറിയാത്ത കുറ്റങ്ങൾക്കാണ് ഓരോരുത്തരും ഇവിടെ മരിച്ചു വീഴുന്നതും അക്രമിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരിക്കലും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നു ഇതിനൊക്കെ വേണ്ടി പല നിയമ വ്യവസ്ഥകളും കുറേ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെയും പൊത് പൊതുവേ ഒ ഒരു പൊ പൊതുവേ ഉള്ളൊരു അറിവ് മാത്രമാണ് പലർക്കും നിയമങ്ങളെ കുറിച്ചായാലും അതുപോലെ മാനസികമായി നമ്മൾ എങ്ങനെ ഒരു കാര്യത്തിനോട് റിയാക്റ്റ് പ്രതികരിക്കണം എന്നുള്ളതും എല്ലാം ചെറിയ സിനിമകളിൽ നിന്നും അതുപോലെ ചെ ചില ചില പ പല പല കണ്ടും കേട്ടും വരുന്ന കാര്യങ്ങളിൽ നിന്നും ന്യൂസ്പേപ്പർ പത്രങ്ങളിൽ നിന്നും മാത്രമാണ് എല്ലാവർക്കും അറിവുള്ളത് അതല്ലാതെ ഇതിനെയൊക്കെ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാം ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതിനെ പറ്റി പലരും വ്യാകുലതപ്പെടുന്നില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അവർക്കൊന്നും ഒരു ധാർമ്മികമായ മൂല്യങ്ങളെ കൈ പിടിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനെയുള്ള ക്ലാസുകളോ അല്ലെങ്കിൽ സാധാരണ എങ്ങനെ മനുഷ്യന്മാർ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയോ ഒന്നും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള വഴികളിൽ മാത്രമാണ് എല്ലാവരും അറിയപ്പെടുന്നതും കാര്യങ്ങളുമൊക്കെ പത്രങ്ങളിലായാലും അതുപോലത്തെ കാര്യങ്ങളൊക്കെ സ്ഥിരമായി വരുമ്പോൾ അതിനെ എല്ലാവരും ചേർന്ന് നോർമലൈസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കതൊരു വലിയൊരു തെറ്റായി തോന്നുന്നില്ല കാരണം ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് അതുകൊണ്ട് തന്നെ സാധാരണ ആൾക്കാർക്ക് ഇവിടെ മ മര്യാദയ്ക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ല എല്ലാത്തിനെയും ഒരു ലാഘവമില്ലാതെ കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതിനൊക്കെ മാറ്റം വരുത്താനായി എല്ലാവർക്കും എല്ലാ പൗരൻമാർക്കും എല്ലാ ചെറിയ ചെറിയ കുട്ടികൾ തൊട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ അറിവുകളും നല്ല രീതിയിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് എന്നുള്ളതും മൂല്യങ്ങളെ ചേർത്ത് പിടിക്കാനുള്ളതുമായിട്ടുള്ള അറിവുകൾ എവിടുന്നെങ്കിലും ലഭിച്ചേ തീരൂ അതിന് ഉദ്യോഗസ്ഥരായാലും നിയമം അ അതിന് എന് എന്തെങ്കിലും മുഖ്യ കാര്യങ്ങളുണ്ടാക്കിയാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്